ഇത് പണിയെടുക്കാന് എത്ര റൂം എത്ര റൂമുണ്ട് ആ ആ താഴെ മൂന്ന് മുകളില് രണ്ട് അപ്പോള് നമ്മള്ക്ക് കോൺട്രാക്റ്റായിട്ട് പണിയുമ്പോള് നമ്മളൊരു ഒരു മാസം അല്ലെങ്കില് രണ്ടാഴ്ചയ്ക്കുള്ളില് ചെയ്തുതരാം സാറേ ഒരിത് ഏഹ്

ആ ഓക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റല്ലേ പറഞ്ഞത് ഒരു എഴുപത്തിയഞ്ച് എണ്പതിനായിരത്തിനടുത്തു വരും ചെറുതായിട്ട് ആ കുറയ്ക്കാന് നോക്കാം

ആ നിങ്ങള് തന്നെ അവർക്ക് പണിക്കാർക്കുള്ള ഫുഡ് കൊടുക്കില്ലേ ആ എന്നാല് നമുക്ക് ഒരു കുറച്ചിട്ടൊരു അന്പത്തി അഞ്ചിലേക്ക് അമ്പത്തി രണ്ടോ അമ്പത്തി അഞ്ചിലേക്കൊക്കെ ആക്കാം

കോൺട്രാക്റ്റായിട്ടല്ലേ ഒരൊന്നൊന്നര മാസംകൊണ്ടു തീർക്കാം

അതു നമുക്ക് എല്ലാ കളറും അവൈലബ്ളാണ് മുമ്പിലൊരു വൈറ്റും കൊടുക്കാം ഒര് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറും ഒരു യെല്ലോ ഷെയ്ഡോ കൊടുത്തു റെഡിയാക്കാം

ആ ഓക്കെ